എൻ്റെ പ്രദേശത്താണെങ്കിൽ കുറെ അധികം തിയറ്ററുകളുണ്ട് അതിലെറ്റവും കൂടുതൽ എന്നെ അട്ട്രാക്റ്റ് ചെയ്തത് അല്ലെങ്കിൽ എനിക്ക് എപ്പോഴും പോകാനായിട്ട് എളുപ്പമായിട്ടുള്ളത് അനുപമ എന്ന് പറഞ്ഞ തിയറ്ററാണ് അതാണെങ്കിൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സുമായിട്ട് അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് പുറത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ ഔട്ടിങ്ങിന് പോകുമ്പോഴൊക്കെ ആണെങ്കിൽ ഞങ്ങൾ എപ്പോഴും മൂവീസ് കാണാറുണ്ട് അല്ലെങ്കിൽ തീയറ്ററിൽ പോയിട്ട് കാണാറുണ്ട് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണെങ്കിൽ അവിടെ പോയിക്കഴിഞ്ഞാലാണെങ്കിലും നമുക്ക് എന്താ അവിടുത്തെ അവിടെ ആ തിയറ്ററിനുള്ളിലുള്ള പ്രസൻറ്റേഷനും സൗണ്ട് ക്വാളിറ്റി ആണെങ്കിലും സ്ക്രീനിങ്ങ് പ്രസൻറ്റേഷനോക്കെ ആണെങ്കിലും അത്രക്ക് നല്ല ഒരു നമ്മളെ പ നമ്മളെ ഇരുത്തും അവിടെ നമുക്ക് മൂവി കാണുമ്പോഴൊന്നും ഒട്ടും നമുക്ക് ബോറായിട്ട് ഫീലെയ്യത്തില്ല അത്പോലെ നല്ലൊരു തീയറ്ററാണത് അവിടുത്തെ ആണെങ്കിൽ പുറത്തുള്ള ഫെസിലിറ്റീസ് അല്ലെങ്കിൽ ഫുഡ് കോർട്ട് അങ്ങനുള്ള കാര്യങ്ങളും എല്ലാം നല്ല രീതിയിലാണ് അവർ പ്രസൻ്റെയ്യുന്നതും കാര്യങ്ങളൊക്കെയാണെങ്കിലും നമ്മളെ ഒട്ടും ബോറടിപ്പിക്കില്ലെങ്കിൽ നമുക്കൊരു മടുപ്പ് തോന്നത്തില്ല നമ്മളൊരു ഫുൾ ഡേ നമ്മളൊരു ഔട്ടിങ്ങിനൊക്കെ പോകുന്ന സമയത്താണെങ്കിൽ ഫ്രണ്ട്സായിട്ടൊക്കെ ഞാൻ പോകാറുണ്ട് എൻ്റെ ഫ്രണ്ട്സായിട്ട് ഞാൻ കൂടുതൽ പോകാറുള്ളത് ഫ്രണ്ട്സായിട്ട് പോകുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ മൂവിയൊക്കെ കണ്ട് എൻജോയ് ചെയ്തൊക്കെയാണ് ഞങ്ങൾ വരുന്നത് ആ സമയത്താണെങ്കിൽ ഞങ്ങൾ ഇത്പോലെ ഈ ഒരു അനുപമ തീയേറ്ററിൽ പോകാറുണ്ട് പോകുന്ന സമയത്താണെങ്കിൽ നമുക്ക് ഭയങ്കരൊരു എന്താ പറയാ ഒരു റിലാക്സേഷനാണ് ഒരു മൂവി കാണുമ്പോൾ അപ്പോൾ നമ്മൾ എപ്പോഴും തിരഞ്ഞെടുക്കുന്ന ഒരു തീയേറ്ററാണ് അവിടെ പോകാണെങ്കിൽ നമ്മുടെ ഫുൾ എന്താ പറയാ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് വൈബാണ് നമുക്ക് നമ്മളെ നെഗറ്റീവ് ആക്കുന്നില്ല ഭയങ്കര പോസിറ്റീവാണ് നമുക്ക് ആ തീയറ്ററിൻ്റെ ഉള്ളിലെ പ്രസൻറ്റേഷനാണെങ്കിലും സൗണ്ട് ക്വാളിറ്റി ബാക്കി എല്ലാം നമുക്കാണെങ്കിൽ നമ്മളെ ഒട്ടും ബോറടിപ്പിക്കാത്ത രീതിയിൽ നല്ല രീതി കൊണ്ട് പോകുന്നാണ് നമുക്ക് എന്താ പറയാ അവിടെയുള്ള എല്ലാ ഫെസിലിറ്റീസും പുറത്ത് നോ നമുക്ക് പുറത്ത്ന്ന് ഉള്ള ആമ്പിയൻസാണെങ്കിലും എല്ലാം തന്നെ നമുക്ക് ഭയങ്കര ഒരു നമ്മളെ അട്ട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ ആണ് അവർ ചെയ്തിരിക്കുന്നത് അത്പോലെ നമുക്ക് ഇഷ്ടപ്പെടും നമ്മളെ നമുക്ക് വീണ്ടും വീണ്ടും നമുക്ക് അവിടേക്ക് ചെല്ലാനായിട്ട് നമുക്ക് തോന്നും ആ ഒരു രീതിയിലാണ് അവിടുത്തെ പ്രസൻറ്റേഷനും കാര്യങ്ങളും എല്ലാം നമ്മൾ ഇപ്പോൾ ചില നമുക്ക് പോകുമ്പോൾ എനിക്ക് അത്പോലെ അനുഭവം ഉണ്ടായിട്ടുണ്ട് ഒരിടത്ത് പോയി ഒരു തീയറ്ററിൽ പോയിട്ട് നമുക്ക് പിന്നെ നമുക്ക് അവിടേയ്ക്ക് പോകാനായിട്ട് നമുക്ക് ഒരു ഇൻ്ററസ്റ്റ് തോന്നീട്ടില്ല പക്ഷേ ഇവിടെ അങ്ങനെ അല്ല നമുക്ക് പോയാലും വീണ്ടും വീണ്ടും നമുക്ക് അവിടെയ്ക്ക് പോകാനായിട്ട് നമുക്ക് ഭയങ്കരിൻ്ററസ്റ്റാണ് ആണ്ടെ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഞാൻ റെഫർ ചെയ്യാറുണ്ട് ഈ ഒരു തീയറ്ററ് അനുപമ തീയറ്ററില് പോകണം അല്ലെങ്കിൽ അവിടെ പോയി മൂവീസ് കാണണം നമുക്ക് നല്ലൊരിതാണ് അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരൊരു റിലാക്സേഷൻ എനിക്ക് അവിടുത്തെ ആമ്പിയൻസ് ഒക്കെ നല്ലതാണ് അത്കൊണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനും ബാക്കിയുള്ളവർക്കും ഒക്കെ ഞാൻ റെഫർ ചെയ്യാറുണ്ട് അത്പോലെ നല്ലൊരു തീയറ്ററാണത് എല്ലാരും അവിടെയ്ക്കാണ് കൂടുതലും പോകാറുള്ളത് അവർ നല്ല ഫുഡിൻ്റെ അവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെയാണെങ്കിലും നല്ല രീതിയിലാണ് നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് ക്വാളിറ്റി ഫുഡ്സ് ഫു ഫുഡാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് അത്പോലെ നമുക്ക് അവിടുത്തെ ഡ്രിങ്കും കാര്യങ്ങളും അങ്ങനുള്ള എല്ലാ കാര്യങ്ങളും നമുക്കാണെങ്കിൽ നല്ല രീതിയിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്ന നല്ല ക്വാളിറ്റിയിലാണ് നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് ഒന്നും അ ആ ഒരു തീയറ്ററിനെ കുറിച്ച് നമുക്കൊട്ടും മോശം പറയാനായിട്ടില്ല എല്ലാം കൊണ്ടും നല്ല ഒരു തീയറ്ററാണത് നമുക്ക് നമുക്ക് ഒരു ഇപ്പോൾ നമ്മൾ ഔട്ടിങ്ങിന് പോകുവല്ല അല്ലാതെ ഒന്ന് പുറത്ത് പോകുവ അപ്പോൾ നമുക്കൊരു മൂവി കാണണമെന്ന് തോന്നുന്നു അപ്പം വേഗം നമുക്ക് അവിടെയ്ക്ക് പോയാലാണെങ്കിലും നമുക്ക് എന്താ പറയാ ഒട്ടും നമുക്ക് ബോറടിപ്പിക്കാത്ത രീതിയിൽ നമുക്ക് എന്താ അവിടെയ്ക്ക് ചെല്ലാൻ അല്ലെങ്കിൽ പുറത്ത് ഉള്ള ആമ്പിയൻസ് മൂവി നമുക്ക് പെട്ടെന്ന് നമ്മൾ ചെന്ന് കഴിഞ്ഞ് ടിക്കറ്റ് എടുത്താലും കുറച്ച് ടൈം ചിലപ്പോൾ നമ്മൾ ലാഗടിച്ച് നിൽക്കാണെങ്കിൽ പോലും നമുക്ക് ആ ഒരു പുറത്ത് നിക്കു നിൽക്കുമ്പോൾ അവിടുത്തെ ആമ്പിയൻസ് കൊണ്ട് നമുക്ക് ഒട്ടും നമ്മളെ ബോറടിപ്പിക്കില്ല അങ്ങനത്തെ ഒരു ആമ്പിയൻസാണ് ആ ഒരു തീയറ്ററിലുള്ളത് ഉള്ളിലാണെങ്കിലും പുറത്താണെങ്കിലും അങ്ങനെ തന്നെയാണ് പിന്നെ അവിടുത്തെ ഫുഡ് കോർട്ട് അങ്ങനുള്ള ഫെസിലിറ്റീസ് ബാക്കിയുള്ള കാര്യങ്ങൾ എല്ലാം നല്ല രീതിയിലാണ് നമ്മളെ ബോറടിപ്പിക്കുന്നേ ഇല്ല നല്ലൊരു തീയറ്ററാണത് നമ്മൾ എപ്പോഴും പോകാറുള്ളത് കൊണ്ട് പറയുന്നതാണ് നല്ലൊരു തീയറ്ററാണത്